കൃഷിയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് കൃത്യമായ കൃഷി ഉപജീവന മാർഗം റോബോട്ടിക് കറവ കൃത്യമായ കൃഷി ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് കാരണം ഒരു തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കാനുള്ള ഒരു ഉപാധി ഒരു കൃഷിയെ തെരഞ്ഞെടുത്താൽ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒത്തിരി കർഷകർ നമ്മുടെ ഇടയിലുണ്ട് കൃത്യമായ പരിചരണവും കൃത്യമായ കൃത്യമായ പരിചരണവും അതോടൊപ്പം തന്നെ കൃത്യമായ പരിരക്ഷയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വരുമാന സ്രോതസ്സ് വർദ്ധിപ്പിക്കുന്ന ഒരു മേഖലയാണ് കൃഷി മേഖല എന്ന് പറയുന്നത് ഉപജീവനമാർഗമായിട്ട് നമ്മൾ ഇതിനെ തെരഞ്ഞെടുത്തിരിക്കുയാണ് കാരണം മറ്റു ജോലികളെ വച്ചു നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിന് അല്ലേ ശരീരത്തിന് ആനന്ദം നൽകുന്ന ഒരു മേഖല കൂടിയാണ് ഇഷ്ടപ്പെട്ട സമയത്ത് നിശ്ചിതമായ ഒരു സമയം നമ്മൾ അതിന് കണ്ടുപിടിച്ചു ആ മേഖലയിൽ നമ്മൾ നമ്മൾക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിശ്ചിതമായ ഒരു സമയത്ത് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും മറ്റു ഇപ്പോൾ ഉദാഹരണത്തിന് സർക്കാർ മേഖല യിലാണെങ്കിൽ നിശ്ചിത സമയം വച്ചിട്ടുണ്ട് ആ സമയം എല്ലാ ഈ കൃഷിയിൽ നിന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മൾക്ക് സ്വന്തമായി നമ്മൾ തന്നെ തെരഞ്ഞെടുക്കുന്ന സമയം തന്നെയാണ് സമയം അങ്ങോട്ടോ മുമ്പോട്ടോ പുറകോട്ടോ മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തായിരിക്കണം നമ്മൾ പിന്നേ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃഗങ്ങളെ സംബന്ധിച്ച് നമ്മൾക്ക് അത് പറ്റുകയില്ല നിശ്ചിതമായിട്ടുള്ള ഒരു സമയം തന്നെ അതിനുണ്ട് രാവിലെ ഇത്ര ടൈമിന് എണീക്കുക ഇത്ര സമയത്തിന് അതിനെ കറക്കുക എന്നുള്ള രീതി അത് കറക്റ്റ് ആയിട്ട് അവലംബിപ്പിച്ചാൽ മാത്രമേ നമ്മൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളു എന്നാൽ മറ്റ് ഇപ്പം കറവയെ സംബന്ധിച്ചാണ് റോബോട്ടിക്ക് കറവ നിലവിൽ വന്നിരിക്കുകയാണ് ഇപ്പം മനുഷ്യ പ്രയത്നം വേണ്ട

നമ്മൾക്ക് സമയം ലാഭമുണ്ട് മറ്റു എന്നാൽ പണ്ട് കറവക്കാരെ ആശ്രയിച്ചു നമ്മൾ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് റോബോട്ടിക്ക് യുഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോളാണ് ഒരു മാറ്റം നമ്മൾക്ക് കൃഷി മേഖലയിൽ ഒരു പുതിയ മാറ്റത്തിന് ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് കൃഷി മേഖല അതോടൊപ്പം നല്ല ഒരു വരുമാന മാർഗ്ഗം തന്നെയാണ് കൃഷിയെ മാത്രം ആശ്രയിച്ചു ജീവിക്കുന്നത് കൃത്യമായ കൃഷി ഉപജീവനമാർഗം തീർച്ചയായിട്ടും അത് തന്നെ അതൊക്കെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ എത്രത്തോളം നമ്മൾ ഭംഗിയായിട്ട് കൃഷിയെ സ്നേഹിക്കുന്നുവോ അത്രത്തോളം കൃഷിയിൽ നിന്ന് നമുക്ക് വരുമാനമുണ്ടാക്കാൻ നമുക്ക് സാധിക്കും അത് നമ്മൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥവും ഉത്തരവാദിത്തോടും അർപ്പണബോധത്തോടും കൂടി ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് ഫലം ലഭിക്കയുള്ളു